കുട്ടികൾക്കായി പത്രങ്ങളിൽ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കുട്ടികൾക്ക് നേരത്തെയൊക്കെ നേരത്തെ പഴയ കാലത്തൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ കുട്ടികളുടെ ദീപകയും അതുപോലുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഥാ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികളെല്ലാം മൊബൈലിൻ്റെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലും വായന കുറഞ്ഞു എങ്കിൽപ്പോലും പത്രങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് വായിക്കാനുള്ള എന്തെങ്കിലുവൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ് കുട്ടികൾക്ക് അറിവ് കിട്ടാനും അതുപോലെതന്നെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾക്ക് നല്ലയൊരു മൂല്യബോധവും അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ച്ചപ്പാടുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അവരെ വായന കൂടുതൽ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ ഒരുപാട് നല്ല പേജ് കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല വായിക്കാൻ ഒരുപാട് ഇപ്പോൾ പഴയ അതായത് പഴയ കാലത്തെ ഒരുപാട് ഓർമ്മകളും അല്ലെങ്കിൽ പഴയ എന്നാ പഴയ നമ്മുടെ പൂർവ്വികരുടെ ചരിത്രങ്ങളും അവർ ജീവിച്ച ചുറ്റുപാടുകളും അവർ ജീവിച്ച സാഹചര്യങ്ങൾ അതൊക്കെയായിരിക്കും കൂടുതലും പിള്ളേർ കൂടുതൽ പ്രചോദനം ഉണ്ടാക്കുക അതല്ലെങ്കിൽ കുട്ടികൾക്ക് ജീവിതത്തിൽ കൂടുതൽ ഉപകാരപ്പെടുന്നതിന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹിത്യമാണല്ലോയെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിടിപ്പിക്കാതെ കുട്ടികൾക്ക് പഴയ മാതാപിതാക്കൾ ജീവിച്ച ജീവിതശൈലികൾ അല്ലെങ്കിൽ അവർ എങ്ങനെയായിരുന്നു അവരുടെ അവരുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ അവർ ജീവച്ച അവർ ഈ ജീവിതത്തോട് പടപൊരുതി എന്ത് എന്ത് എന്ത് എന്തുമാത്രം ത്യാഗങ്ങളും കഷ്ടതകളുമൊക്കെ സഹിച്ചാണ് അവരിങ്ങനെ ഈ ഒരു നല്ല നിലയിൽ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളിപ്പം നല്ല നല്ല നിലകളിൽ എത്തിച്ചേർന്നത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു പഴയ തലമുറയുടെ അനുഭവങ്ങൾ പുതിയ കുട്ടികൾക്ക് വായിക്കത്തക്ക രീതിയിൽ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതായത് പഴയ ആൾക്കാരെക്കൊണ്ട് തന്നെ അവരോടു തന്നെ സംസാരിച്ച് അവരുടെ ഒരു അഭിമുഖം പോലെ സംസാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കഥകളാക്കി അങ്ങനെ കൊടുക്കില്ലേ നല്ലയൊരു ഫീച്ചറുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും അതൊക്കെ ഒരുപാട് കുട്ടികൾ കേട്ടു കഴിയുമ്പോൾ ഇങ്ങനെയായിരുന്നു പഴയകാലമൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പോഴത്തെ ഒരു തലമുറയും പഴയ തലമുറകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതെല്ലാം കുട്ടികൾ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ഉപകാരമാകും അത് പിള്ളേരെ കൂടുതലും നല്ല നന്മയിലേക്ക് നയിക്കും അല്ലെങ്കിൽ പിള്ളേർക്ക് ഒരുപാട് ജീവിതത്തിൽ അവർക്കൊരുപാട് അത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ കുട്ടികളോട് ഒരുപാട് ഉപദേശിക്കുന്നതിനേക്കാളും നല്ലത് അവരോട് ഒരുപാട് കടിച്ചാൽപ്പൊട്ടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലത് കുട്ടികൾക്ക് നല്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ പഴയ അനുഭവങ്ങളാണ് അനുഭവാണ് ഗുരുയെന്നല്ലെ പറയുന്നത് അപ്പം അവരുടെ അനുഭവങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതവരെ കൂടുതൽ ജീവിതത്തിൽ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും ഒത്തിരി അവർക്കും അവരുടെ ജീവിതത്തിലെ നന്മകൾ കണ്ടുപിടിക്കാനും നന്നായിട്ട് ജീവിക്കാനും ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണല്ലേ എന്തൊക്കെ പാലിച്ചാലാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ജസ്റ്റ് ഒരു പാത്രം കഴുകുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീട് ക്ലീൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും വീട് വൃത്തിയാക്കുന്ന കാര്യമൊക്കെ ആണെങ്കിലും കുട്ടികൾക്കത് വലിയ ഭാരപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് പക്ഷേ പഴയ ആൾക്കാർ ജീവിച്ച സാഹചര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് നല്ലത് എളുപ്പം എളുപ്പത്തിൽ ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന് അവർ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ലത് എഴുതി അവർക്ക് വായിക്കാൻ പറ്റിയ നല്ല നല്ല കാര്യങ്ങൾ പത്രങ്ങളിലും അതുപോലെ തന്നെയൊക്കെ വരികയാണെങ്കിൽ അതവർക്ക് ഒരുപാട് ഉപകാരപ്പെടും കുട്ടികൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങളും